സാങ്കേതിക വിദ്യയെക്കുറിച്ച് പഠിക്കുന്നത് ഇപ്പം സംബന്ധിച്ച് നമ്മുടെ സമൂഹത്തിൽ ഒരാവശ്യമായി വന്നിരിക്കുകയാണ് കാരണം ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ സമൂഹത്ത് ജീവിക്കണമെങ്കിൽ സാങ്കേതിക വിദ്യയെക്കുറിച്ച് നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഇന്ത്യയിലൊക്കെ കുറേ കാര്യങ്ങളറിഞ്ഞിരിക്കണമെങ്കിൽ മാത്രമേ നമ്മൾ ഇനി ഇനി ഇന്നത്തെ മുന്നോട്ടുള്ള ജീവിതം നമുക്ക് എളുപ്പമായി അല്ലെങ്കിൽ സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളു കാരണം ഇനി നമ്മൾ ജീവിക്കേണ്ടത് സാങ്കേതിക വിദ്യയുടെ ഒരു തലത്തിലാണ് നമ്മളിനി ജീവിക്കാൻ പോകേണ്ടതപ്പം അടിസ്ഥാനപരമായി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ചില ചില കുറച്ച് ബേസിക്കായിട്ടുള്ള അല്ലെങ്കിൽ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നമ്മളറിഞ്ഞിരിക്കണം അതിനുവേണ്ടി നമുക്ക് എന്താ പറയക ഇനി വരുന്ന കുട്ടികളിലാണെങ്കിലും വിദ്യ വിദ്യാലയങ്ങളിലാണെങ്കിലും അതിനെക്കുറിച്ച് പഠിപ്പിക്കാനും സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അത് അതിൻ്റെ അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി അതിൻ്റെ ഉപയോഗത്തെപ്പറ്റി എല്ലാം പഠിപ്പിക്കാനും മാത്രമല്ല അതെങ്ങനെ ഒരു സമൂഹത്തിലുപയോഗിക്കണം അല്ലെങ്കിലതിൻ്റെ കാര്യങ്ങളൊക്കെ കുട്ടികൾക്കും അല്ലെങ്കിൽ ആ സമൂഹത്തിലും പറഞ്ഞു കൊടുക്കേണ്ടത് അത് ആവിശ്യമാണ് എങ്കിൽ മാത്രമേ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അതു വളരെ ഉപകാരപ്രദമാവുകയുള്ളു കാരണം ഈ കഴിഞ്ഞ ഈ ഒരു അഞ്ച് വർഷം മുന്നെയുള്ള മുന്നെയുള്ള നമ്മുടെ സാമൂഹിക രീതിയും ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ രീതിയും രണ്ടും രണ്ടാണ് കാരണം സാങ്കേതികപരമായ കുറേ മുന്നേറ്റങ്ങൾ നമുക്ക് ഈ വർഷങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ അഞ്ചാറ് അല്ലെങ്കിൽ ഏഴെട്ട് വർഷങ്ങൾകൊണ്ട് നമുക്ക് കയ്യടക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ തുടർന്ന് നമ്മുടെ ഭാവിയിൽ ഇതിനേക്കാളും വലിയ സാങ്കേതികവിദ്യ വരുമെന്നും അപ്പം അതിലൊക്കെ നമ്മൾ തരണം ചെയ്യണമെങ്കിൽ അല്ല അതിലൊക്കെ നമുക്ക് ജീവിക്കാൻ ഒരു അതിൽ അതിൽക്കൂടെയൊക്കെയാണ് നമ്മൾ ജീവിക്കേണ്ടി വരിക അപ്പം നമുക്ക് അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും ഒക്കെ സാങ്കേതിക വിദ്യയെക്കുറിച്ച് പഠിച്ചിരിക്കുന്നത് ഒരു ആവശ്യമായ കാര്യമാണ് അതുകൊണ്ട് എൻ്റെ ഒരു ഞാൻ വിശ്വസിക്കുന്നത് സാങ്കേതികപരമായിട്ട് എല്ലാവരും മുന്നോട്ട് നിൽക്കണമെന്നും ഇപ്പം ഉള്ള യുവജനങ്ങൾക്കൊക്കെ ഇപ്പം അത്യാവശ്യം സാങ്കേതിക വിദ്യയെക്കുറിച്ചൊക്കെ അറിയാം എങ്കിലും കുറേ കുറച്ച് നമ്മുടെ സമൂഹത്തിൽ കുറേ പഴയ ആൾക്കാരുണ്ട് അതായത് ഈ സാങ്കേതിക വിദ്യ വരുന്നതിനു മുമ്പും വന്നു കഴിഞ്ഞിട്ടും ഉള്ള ജീവിതം അവർക്ക് അനുഭവിക്കാൻ പറ്റിയ ആൾക്കാരുണ്ട് അപ്പം അവർക്ക് സാങ്കേതികവിദ്യയെ വിദ്യയെക്കുറിച്ച് കൂടുതലൊന്നും അങ്ങ് അറിയണമെന്നില്ല അപ്പം നമുക്കവരെ നല്ല ബോധ്യവാന്മാരാക്കുകയും ഇതിൻ്റെ ഉപയോഗങ്ങളിതിൻ്റെ ഗുണങ്ങളും പിന്നെ ഇതിൻ്റെ ഉപയോഗം വഴി അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഉപയോഗം വഴി നമ്മൾ അവരുടെ സമയം ലാഭിക്കാനൊക്കെ ഉള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമായ കാര്യമാണെങ്കിൽ മാത്രമേ അവർക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇതിനോടൊരു താൽപ്പര്യം തോന്നുകയൊക്കെയുള്ളൂ ഇപ്പം പെട്ടെന്ന് അവരോടൊരു കാര്യം പോയി പറഞ്ഞാൽ അവർക്കാണെങ്കിലും വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇതേവരെ അവർ കണ്ടിട്ടില്ലാത്തൊരു സാങ്കേതികവിദ്യ ഇവിടെ ലോകത്താണ് അവരിപ്പോൾ ജീവിക്കുന്നത് അപ്പോൾ അവർക്ക് ചില കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളണമെന്നോ അല്ലെങ്കിൽ പഠിക്കുക പഠിക്കണമെന്നോ ആഗ്രഹം കാണുകയില്ല കാരണം അത് ഭയങ്കര പാടാണെന്നൊക്കെ ഓർത്തിരിക്കുന്നവരാണ് കൂടുതലും എന്നാൽ ഇങ്ങനെയൊരു ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഇതെളുപ്പമാണ് ഇത് ഇതിപ്പോൾ ഇങ്ങനെ ഇതിനെക്കുറിച്ച് കൂടുതലറിയാൻ അറിഞ്ഞാലും ഇതിലോട്ട് കൂടുതൽ നമ്മൾ സാങ്കേതിക വിദ്യയുടെ സ്ഥലത്തിലേക്കിറങ്ങി വരികയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൻ്റെയൊരു നല്ല ഭാഗം സമയം നമ്മൾ ലാഭിക്കുകയാണെന്നും ഉള്ള ബോധ്യം അവർക്ക് കൊടുക്കണമെന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാറുണ്ട് പറയുന്നു മാത്രമല്ല ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യയുടെ വളർച്ചയിലൂടെയാണ് നമ്മുടെ സമൂഹമാണെങ്കിലും വളരുകയുള്ളു അപ്പം എന്തുകൊണ്ടും സാങ്കേതികവിദ്യയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ശരിക്കൊരാവശ്യം വേണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്